വിവാഹങ്ങളിലെ ആൾ ആളുകൾ വധുവിന് എന്തെങ്കിലും ഉപയോഗപ്രദമായ സമ്മാനങ്ങൾ കൊടുക്കണം എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം സ്ത്രീധനം ഇന്ന് സ്ത്രീധനം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സ്ത്രീധനം ആയിട്ട് അല്ലെങ്കിലും എന്തെങ്കിലും അവർക്ക് ധനമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത് ഒരു സഹായമാവും എന്നുള്ള നിലയിൽ അതൊരു സ്ത്രീധനം എന്നുള്ള ഒരു രീതിയിൽ അതിനെ ഒരു ചോദ്യം ചോദിച്ചു കൂടുതൽ വേണം കൂടുതൽ വേണമെന്നുള്ള ഒരു രീതിയിലേക്ക് ആക്കാതിരുന്നാൽ ആ ഒരു ആ പറ്റത്തിനെ തന്നെ ഒരു ഒരു ഒരു നല്ല അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഒരു കാര്യമാണ് കാരണം ജീവിതത്തിലെ മുന്നോട്ടുളള പ്രയാണത്തിൽ ചെലപ്പോൾ രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ അപകടങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അവരുടെ പേരൻസ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്നില്ല ആ അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ഇതിനെ ഈ ഇത്തരത്തിൽ സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ധനമായിട്ടോ കിട്ടുന്നതിനെ അവർക്ക് അപ്പോൾ ആ ഉള്ള പ്രതിസന്ധിയിൽ ഉപയോഗിക്കാൻ പാകത്തിന് അതെടുക്കാൻ തരത്തിന് ഉള്ള ഒരു ഒരു ധനം എന്നുള്ള നിലയിൽ അതൊരു മോശമായിട്ടുള്ള കാര്യം ആക്കി എടുക്കേണ്ടതില്ല സ്ത്രീധനമെന്നുള്ള നിലയിൽ അതിനെ ചോദിച്ചു ചോദിച്ചു കൂടുതൽ വേണം കൂടുതൽ വേണമെന്നുള്ള നിലയിലേക്ക് ആകുമ്പോഴാണ് അത് അത് അതിനൊരു മോശം ഭാഷ വരുന്നത് ശരിക്കും അല്ലെങ്കിൽ സ്ത്രീധനമെന്ന് പറയുന്നതും നല്ല ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിലും നമ്മൾ കുട്ടികൾക്ക് സ്വന്തം കുട്ടികൾക്ക് നമ്മൾ എന്തായിരുന്നാലും അവരെ വെറുതെ വെറും കയ്യോടെ വിടാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതും നമ്മൾ കൊണ്ടു നമ്മൾ കാത്ത് വച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് അണി അണിയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കരുതി വയ്ക്കുന്നതുമായിട്ടുള്ള സംഗതികൾ ആഭരണങ്ങളും മറ്റ് പല തരത്തിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം അതൊരു സന്തോഷത്തിൻ്റെ ഭഗമായിട്ട് നല്ല ഒരു അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് മറ്റുള്ള ആൾക്കാർ ചില ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്നുള്ള നിലയിൽ കൊടുക്കുന്നവരുണ്ട് അങ്ങനെയല്ലാതെ അവർക്ക് നാളെ അല്ലെങ്കിൽ അവർക്ക് പിന്നെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി മധുരങ്ങളായിട്ടും ചോക്ക്ലേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സുഗന്ധ ആയിട്ടുള്ള വസ്തുക്കളായിട്ടും എന്തായിട്ടായിരുന്നാലും സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ വേളയാണല്ലോ വിവാഹമെന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ വേളയാണ് ഇപ്പഴ് ആ അർത്ഥത്തിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലാതെ വെറുതെ പോയി നമ്മൾ കല്യാണത്തിന് വെറുതെ പോകുന്നതിനേക്കാൾ എന്തെങ്കിലും അവർക്ക് ഒരു സമ്മാനവുമായി പോണത് ഒരു നല്ല ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഇപ്പം തലമുറയിൽ പലരും സമ്മാനം സമ്മാനങ്ങൾ ഒഴിവക്കണമെന്ന് കത്തിൽ തന്നെ എഴുതി കാണുന്നു അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം കത്തിൽ അത് എഴുതി കാണുമ്പോഴേക്കും അവർ ഈ സമ്മാനം കൊണ്ട് വരുന്നത് എന്തോ ഒരു ഒരു അവർക്ക് ഒരു ബർഡൻ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു വലിയ വലിയ ഒരു ബാധ്യത പോലെയാണ് അവർ കൊണ്ടു വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ കാണുമ്പോഴാണ് അത് വേണ്ട ഒഴിവാക്കണം എന്ന് പറയുന്നത് ചിലപ്പം അവർ പലരും കല്യാണങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് വല്ലതും കേട്ടിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു വാക്യം ഈ കല്യാണ ലെറ്ററിൽ ഒക്കെ ഇപ്പം എഴുതുന്നത് പക്ഷേ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിട്ടുള്ള വിവാഹത്തിൽ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഒരു നല്ല ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു ഇതാണ് ഒരു ഒരു പ്രതീതിയുളവാക്കുന്നതാണ് അങ്ങനെയുള്ള അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേക്കും സമ്മാനങ്ങൾ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും സ്ത്രീധനം എന്നുള്ള ഒരു ഒരു ഒരു ബാർഗ്ഗയിനിങ്ങിൽ ആവാത്ത രീതീലാണെങ്കിലും സ്ത്രീധനവും അതൊരു വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ കല്യണത്തിന് സന്തോഷത്തിൻ്റെ ഒരു അർത്ഥത്തിൽ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മൾ ഒരു ഒരു സമ്മാനവുമായിട്ട് അവരെ സമീപിക്കുന്നതും ഒരു സന്തോഷത്തിൻ്റെ അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേക്കും അതൊരു നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക്